പാചകവും നമ്മുടെ വിവിധ ഇനം ഭക്ഷണങ്ങളും നമ്മളെ സോഷ്യൽ മീഡ്യയിൽക്കൂടിയാണ് നമ്മൾ ഇപ്പോൾ പല ഭക്ഷണ രീതികളും നമ്മൾ സാധാരണ നോർമ്മലായി ഇണ്ടാക്കുന്ന എന്നും ഒരേ ഭക്ഷണം തന്നെ കഴിച്ച് വീട്ടിലുള്ളവരും ഒക്കെ മടുത്തിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം നമ്മൾ ഫോണ് ഒന്ന് എടുത്ത് നമ്മൾ നോക്കുക അപ്പം ആ സമയത് നല്ല നല്ല ഫുഡുകൾ പുറത്തുനിന്നുള്ള നല്ല നല്ല ഫുഡ്ഡുകളാണ് നമ്മളത് അതിൻ്റെ വീഡ്യോസ് ഒക്കയാണ് നമ്മൾ കാണുക അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും കൂടുതൽ ആശ്രയിക്കുന്നത് ഫോണ് യൂട്യൂബ് അങ്ങനെയുള്ള ചാനലുകളാണ് ഞാനും ഒരു യൂറ്റൂബർ ആണ് പാചകമാണ് മെയിൻ ആയിട്ട് ഞാൻ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഞാനത് കാണിക്കുമ്പോഴേക്കും നല്ല നല്ല കമന്റുകളാണ് വരൽ ഇത് വളരെ കുറഞ്ഞ സമയംകൊണ്ടും ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരും അതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്താ പാചകം എന്നുള്ളത് ഒരു സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല പുരുഷന്മാർക്കും കുട്ടികൾക്കുമൊക്കെ നമ്മളൊരു സമയം വീട്ടിലില്ലാത്തൊരു സമയത്ത് അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്കറിയാത്ത ഒരു കാര്യമാണെങ്കിൽക്കൂടി നമുക്കത് സോഷ്യൽ മീഡ്യയിൽക്കൂടെ നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കാനും മനസ്സിലാക്കാനും ഇന്ന് സൗകര്യങ്ങളുണ്ട് അപ്പം അത് ആ രീതിയിൽക്കൂടെ കുട്ടികളും എന്താ ഭർത്താക്കന്മാരും ഒക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നിലേക്ക് നല്ലൊരു രീതിയിൽ പോവുമ്പം ആ കുടുംബജീവിതംതന്നെ നല്ല രീതിക്ക് പോവാൻ കഴിയും പിന്നെ നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് പോവുമ്പോൾ നമ്മൾ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡ്യയിൽക്കൂടെ ആ ഭക്ഷണം അവർ രുചിക്കുന്നത് കാണുമ്പോൾ നമുക്കും തോന്നും ഓ അത് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് അവിടെ പോവുമ്പം അത് കഴിക്കണം പിന്നീട് നമ്മൾ അതിൻ്റെ വിഡ്യോസ് ഒക്കെ നമ്മൾ അതിൽ കാണുമ്പോൾ നമുക്കും അത് ട്രൈ ട്രൈ ചെയ്ത് നോക്കിക്കൂടെ നമ്മുടെ വീട്ടിലും എന്തുകൊണ്ട് അത് ഉണ്ടാക്കിക്കൂടാ എന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്കും അത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നോർത്തീസ്റ്റ് ഫുഡ്ഡാണെങ്കിലും പുറത്ത് ഏത് രാജ്യങ്ങളിൽ പോയാലും അവിടുന്ന് കിട്ടുന്ന ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല ഫേമസ്സ് മന്തി റൈസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലിപ്പം അതൊരു സുലഭമായ സാധനമായി മാറി അപ്പം ഒക്കെ അതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണം നമ്മൾ ഒരിക്കലും നമുക്ക് കഴിക്കാൻ പറ്റും എന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡ്യ ഉള്ളത് കൊണ്ട് അതിൽക്കൂടെ നമ്മളത് കാണുകയും അത് നമ്മളും നമ്മളും അതിനെ ഉണ്ടാക്കി നോക്കുകയും ഒക്കെ ചെയ്തു